ഞാനൊരു കുർത്തി വേടിച്ചിട്ടുണ്ടായിരുന്നു അയിൻ്റെ അതൊര് കല്യാണത്തിന് പോയപ്പം അത് ഇട്ടിട്ടാണ് പോയത് പുതിയ എന്താ പുതിയത് നോക്കി നല്ല കളറും ഇതൊക്കെ കണ്ടിട്ട് വേടിച്ചതാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കാണാൻ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നിയിട്ട് വേടിച്ചതാണ് അത് വേടിച്ച് എന്താ കല്യാണത്തിന് പോവാൻ വേണ്ടിയിട്ട് അതിട്ട് പോയി ഇട്ട് പോയപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിയിൽ മഴ പെയ്തു മഴ പെയ്തപ്പോൾ ആ ഡ്രസ്സൊക്കെ ആകെ കളറ് അപ്പോൾത്തന്നെ കളറ് പോയി ദേഹത്തൊക്കെ അതിൻ്റെ കളറ് പറ്റി എന്താണ് ഫുള്ള് ആയിട്ട് അതിൻ്റെ കളറും ഇതൊക്കെ പോയി ഞാൻ അസ്ബെൻഡ് കുർത്തി എന്താ ഓൺലൈനിൽ കണ്ടപ്പോൾ ആ കുർത്തി കണ്ടപ്പോൾ അതിൻ്റെ ഭംഗി കൊണ്ട് അസ്ബെൻറ്റിൻ്റെ അടുത്തുനിന്ന് പൈസ പൈസ ചോദിച്ച് വേടിച്ചിട്ട് വേടിച്ചതായിരുന്നു അത് ഇതുതന്നെ കുറെ ചീത്തയൊക്കെ പറഞ്ഞു അനക്കിത് എപ്പഴും ഇത് ഓരോന്ന് വേടിക്കലാണ് പണി എന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്ത ഒക്കെ പറഞ്ഞു എന്നിട്ടാണ് അത് വേടിച്ചത് അത്രയും ഇഷ്ടപ്പെട്ട് വേടിച്ചതാണ് വളരെ വളരെ മോശപ്പെട്ട ഒരു ഇതായി പോയി അത് എന്താ വെച്ചാൽ ഒരലക്കൽ അലക്കിയപ്പത്തേനും അതിൻ്റെ കളറ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ഇളകി പോയി ഒരു വൃത്തിയില്ലാതെയായി അത്